നമ്മുടെ ഇവിടുത്തെ തൊഴിലില്ലായ്മ ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ എന്താ ഓരോരോ ഇൻസ്റ്റ്യൂട്ട് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ അപ്പം ഓരോരോ പിള്ളേരെ ഇങ്ങനെ കമ്പ്യൂട്ട്റ് പഠിപ്പിക്കുന്നുണ്ട് കമ്പ്യൂട്ട്ർ പരിശീലനത്തിന് ഫ്രീയായിട്ട് ഇതാക്കുന്നുണ്ട് അത് ഓരോരോ ജോബിനൊക്കെ വേണ്ടി കയറാൻ വേണ്ടിയിട്ട് ഫ്രീയായിട്ട് എജുക്കേഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ വയസ്സായവർക്ക് തൊഴിലുറപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇവ്ടെ നടത്താറുള്ളത് പിന്നെ പാവപ്പെട്ടവർക്ക് മുൻഗണന എല്ലായിടത്തും കൊടുക്കാറുണ്ട് അത് ഫീസില്ലാത്തവരെ ഫീസില്ലാതെ ഇതാക്കുന്നൊക്കെ ഉണ്ട് ഫ്രീയായിട്ടാണ് മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ ഗവൺമെൻ്റ് കൊടുക്കുന്നത് ഇവിടെ പനമരത്തായിട്ടൊരു ഇൻസ്റ്റ്യൂട്ട് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ അപ്പം പൈസ ഇല്ലാത്തവരെ ഫ്രീയായിട്ട് പഠിപ്പിക്കും അങ്ങനെയൊക്കെയാണ് മത ഇല്ലായ്മയൊക്കെ പരിഹരിക്കാറ്